ഹലോ ക്യാബ് ഏജൻസി അല്ലേ ഞാൻ മിനിഞ്ഞാന്ന് അവിടെ നിന്ന് ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ ആ അതെ സുഹേറോ അപ്പം നമുക്ക് ഇന്നലെ നിങ്ങളെ അവിടെ നിന്ന് ഒരു ഇന്നലെ ആയിരുന്നു നമുക്ക് കോഴിക്കോടിൽ നിന്ന് കൊല്ലത്തേക്ക് പോകേണ്ടത് അപ്പം ഇന്നലെ നിങ്ങളുടെ അവിടെ നിന്ന് ക്യാബ് ബുക്ക് ചെയ്ത് കറക്റ്റ് ടൈം ഒക്കെ വന്നു പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാബൊക്കെ വെറും വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമുക്ക് കാണാൻ പറ്റിയത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആരൊക്കെയോ കഴിച്ച ഫുഡിൻ്റെ വേസ്റ്റ് അതായത് ലെയിസിൻ്റെ പാക്ക് മുട്ടായിൻ്റെ പാക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീറ്റ് ആണെങ്കിൽ കീറിയിട്ട് അതിൽ നമുക്ക് ഒട്ടും നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് തോന്നിയിട്ടില്ല അതായത് നമുക്ക് ഭയങ്കര ഒരു വൃത്തിഹീനമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് തോന്നിയത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഇപ്പോൾ കൊറോണ കാര്യങ്ങളൊക്കെ ഉള്ളൊരു സമയം ഏകദേശം നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പം ഡ്രൈവറും മാസ്ക് വെച്ചിട്ടില്ല പിന്നെ അതൊന്നും നമ്മൾ പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല അതൊക്കെ അവർ അവരുടേതായ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അതൊക്കെ ഒക്കെ നിങ്ങളുടെ പ്രശ്നമുള്ളു പക്ഷെ നിങ്ങൾ വണ്ടി ഒക്കെ ഒന്ന് ഇതാകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വണ്ടിയൊക്കെ പൊടി ഒക്കെ തട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് കൊണ്ട് വരികയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നതല്ലേ അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രശ്നം തന്നെയല്ലേ ആ അപ്പം അതൊക്കെ പറയാൻ വേണ്ടി വിളിച്ചതാണ് ആ ഓക്കെ